ഇന്ത്യയിൽ കാണാനായിട്ട് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് താജ്മഹലുണ്ട് ഇന്ത്യ ഗേറ്റുണ്ട് ചുവപ്പ് കോട്ടയുണ്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഗോവ മാത്രമേ ഉള്ളു ഗോവയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ അന്ന് ഭയങ്കര പെരുമഴയായിരുന്നു ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗോവ നഗരത്തെ മുഴുവൻ മുക്കിക്കളയുന്ന പോലത്തെ മഴയായിരുന്നു ഞങ്ങൾ അവിടെ പള്ളി ചെന്ന് വിശുദ്ധ ഫ്രാൻസീസ് സേവ്യറുടെ തിരുശേഷിപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ തടാകത്തിലോട്ട് രണ്ട് രണ്ട് സ്ഥലത്ത് പോയിട്ട് അവിടെ എങ്ങും ഇറങ്ങാൻ പറ്റിയില്ല അതുപോലെ ഭയങ്കര മഴയായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇടുക്കി പോയിട്ടുണ്ട് മുല്ലപ്പെരിയാറ് കണ്ടിട്ടുണ്ട് അഞ്ചുരുളി കണ്ടിട്ടുണ്ട് പിന്നെ പോയിരിക്കുന്നത് വാഗമണ്ണുണ്ട് ഇടുക്കി കാണാൻ പോയി കഹ് തേക്കടി കാണാൻ വേണ്ടി പോയിട്ടുണ്ട് വാഗമണ്ണ് അവിടെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം അവിടെ അല്ലാ അവിടെ ഒരു വലിയ തടാകം ഉണ്ട് അത് കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വൈഗാ ഡാമു കാണാൻ വേണ്ടി പോയി വൈഗാ ഡാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി എന്നാ പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വാഗമണ്ണ് അവിടെ വൈഗാ ഡാമ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര ഡാമായിട്ട് കെട്ടി പൊക്കി അതൊരു ഭയങ്കര സംവിധാനമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണത് നമുക്കൊരു ഒരു മണിക്കൂറൊന്നും അല്ല അതിൽ കൂടുതലായിട്ട് സമയം നിന്ന് നമുക്കത് കണ്ട് നല്ല രസമാണതൊന്ന് കാണാനായിട്ടത് കാണാത്തവരത് ഒന്ന് പോയി കാണണ്ടിയ സ്ഥലം തന്നെയാണത് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ മുന്തിരിപ്പാടം കണ്ടു ജീവിതത്തില് ഒരു വലിയ ആഗ്രഹം ആയിരുന്നു മുന്തിരിപ്പാടം കാണുകയെന്ന് നമ്മൾ മുന്തിരിങ്ങ മേടിച്ച് കഴിക്കുന്നതെന്നുള്ളതല്ലാതെ ഇത് എങ്ങനെയാ ഉണ്ടായി കിടക്കുന്നതെന്നും ഇതെങ്ങനെയാ കാര്യം കാണുകയെന്നൊള്ളതൊരു ഭയങ്കര ആഗ്രഹം ആയിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അത് വിളവെടുപ്പും കണ്ടു മുന്തിരി മേടിക്കുകയും ചെയ്തു ഉണ്ടായി കിടക്കുന്നത് ചെറുപ്പം മുതലേ വളരുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും കാണുകയും എടുക്കുകയുമൊക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ